ഇവിടെ പ്രധാനമായിട്ടും പ്രായമുള്ളവര് കളിക്കുന്ന കളികൾ എന്ന് പറയുന്നത് ക്ലബുകളില് അവര് ക്യാരംസ് കളിക്കുന്നുണ്ട് കാരണം ഒരുപാട് പ്രായമുള്ളവർക്ക് ശരീരം അനങ്ങിയുള്ള കളികളിൽ ഏർപ്പെടാൻ പറ്റില്ല അവർക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടു തന്നെ ക്യാരംസ് കളിയാണ് പ്രധാനമായും പ്രായമുള്ളവര് കളിക്കുന്ന ഒരു കളി പിന്നെ അതുപോലെ മറ്റൊരു കളി എന്ന് പറഞ്ഞത് ചെസ്സ് ആണ് ചെസ്സ് കളിക്കുന്നുണ്ട് ക്ലബില് ഇരുന്നു കൊണ്ടുള്ള ചെസുകളിൽ ഒരുപാട് പ്രായമുള്ളവർ കളിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രായമുള്ളവരില് കുറച്ച് ശരീരം അനങ്ങാം പറ്റുന്നവര് അതായത് കുറച്ച് കളിക്കാൻ പറ്റുന്ന ആളുകള് അതായത് കൊളസ്ട്രോള് ബി പി പൊണ്ണത്തടി മുതലായവ കുറക്കാൻ വേണ്ടിയിട്ട് ഷട്ടിൽ കളികൾ കളിക്കുന്നുണ്ട് അതായത് അദ്ധ്വാനിച്ച് കളിക്കാൻ പറ്റുന്നവർ പ്രായം ഒരുപാട് പ്രായം ആവാതെ അവർ കളിക്കാൻ പറ്റുന്നവര് ഷട്ടിൽ കളികൾ കളിക്കുന്നുണ്ട് അത് അത് അവരുടെ എന്താ പറയാ ആരോഗ്യത്തെ സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നായിട്ട് കണക്കാക്കുന്നു